ആദ്യമായി രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ തുടങ്ങാം മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളായതിൽ എനിക്ക് തീർച്ചയാമായും അഭിമാനം തന്നെയാണ് കാരണം ഞാൻ എൻ്റെ മക്കളെ പോലും അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരാണെങ്കിലും അവർക്ക് ഞാൻ മലയാളം കമ്പൽസറി ആയിട്ട് അവരെ മലയാളം പഠിപ്പിക്കുകയും മലയാളം എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഓർ തേഡ് ലാംഗ്വേജ് ഏതെങ്കിലും രീതിയിൽ പിന്നെ ഇംഗ്ലീഷൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് മലയാളത്തിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനി മലയാളത്തില് വലിയ ശൈലിയും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും മലയാളമെന്ന് പറയുന്നത് മലയാളഭാഷ സംസാരിക്കാൻ എനിക്ക് വളരെ എൻ്റെ മാതൃഭാഷ മലയാളം ആയതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്ന ഒരു വനിതയാണ് പിന്നെ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്കും പ്രയോഗവും എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്ന് പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം പിന്നെ അതിൻ്റെ പ്രയോഗങ്ങളെന്ന് പറയുന്നത് എനിക്ക് അങ്ങനങ്ങ് പറയാന് എനിക്കറിയത്തില്ല എന്തായാലും മാതാപിതാ ഗുരു ദൈവം അതാണ് എൻ്റെ ഏറ്റവും എൻ്റെ മനസ്സിലെ ഏറ്റവും നല്ല മലയാള വാക്കുകളായി ഞാൻ കരുതുന്നത്